ഹലോ കസ്റ്റമർ കെയര് അല്ലേ പിന്നെ എൻ്റെ നമ്പറില് റീചാർജ് ചെയ്യാനായിരിക്കുന്നു അപ്പം ഞാനൊരു അർജൻറ് മീറ്റിങ്ങിലാണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് റീചാർജ് ചെയ്യേണ്ടതുണ്ട് എൻ്റെ നമ്പര് നയൻ സിക്സ് ഫൈവ് സിക്സ് എയിറ്റ് സെവൻ സിക്സ് സെവൻ എയിറ്റ് സീറോ ആണ് അതിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു മുന്നൂറ്റി നാൽപത്തിയൊമ്പത് രൂപയുടെ റീചാര്ജ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പണം ഞാൻ ജിപേ വഴി അയച്ചുതരുന്നതാണ് നിങ്ങളുടെ നമ്പർ എനിക്ക് അയച്ചുതന്നാൽ വളരെ ഉപകാരമായിരുന്നു അതല്ലെങ്കിൽ സ്കാനർ വഴിയോ മറ്റോ ഞാൻ അയയ്ക്കാം മ്മ് അതുപോലെ തന്നെ വല്ല ഓഫറോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാലും ഉപകാരമായിരുന്നു റീചാർജ് എത്രയും പെട്ടെന്ന് നടക്കേണ്ടതാണ് അൺലിമിറ്റഡ് കോളാണ് എനിക്ക് കാര്യമായി ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയില് വരുന്ന വല്ല ഓഫറുകളുമുണ്ടെങ്കിൽ പ്രത്യേകമായി അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഇതിനുള്ള ഫണ്ട് ക്യാഷ് നിങ്ങളുടെ ജിപേയിലേക്ക് അയയ്ക്കുന്നതുമാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് കാര്യങ്ങൾ സാധിച്ചാൽ വളരെ ഉപകാരമായിരുന്നുവെന്ന് അറിയിക്കുന്നു